ഇല്ല കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് ഒന്നും ക്ലിയറായിട്ടില്ല അത് ആ ഇപ്പോൾ വലിയ രീതിയിൽ അത് പോകുന്നില്ല അതും ആരും വാങ്ങിയിട്ടില്ല രണ്ടോ മൂന്നോ ഒന്നാറ്റേ അത് പോയിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പോയി എന്ന് പറയാൻ പറ്റില്ല രണ്ട് എണ്ണം ആ മറ്റേ പോയിട്ടുള്ളൂ എന്താണെന്ന് വച്ചാൽ ആരിക്കും അത് വേണ്ട എന്നാണ് പറയുന്നത് എല്ലാവരു ഇപ്പം പുതിയ പുതിയ ഡിസൈന് നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് ചെറിയ ഒരു കാര്യം പറയാനുണ്ട് ആ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ ആണല്ലോ ഇത് ചോദിച്ച് വരുന്നത് അപ്പോൾ അവർ ഈ ഇങ്ങനെ കൂടുതൽ പൊലിമ തോന്നിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളോടൊന്നും അവർക്ക് വലിയ താൽപര്യമില്ല അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ഭാരം കുറഞ്ഞ തരത്തിലുള്ള ആഭരണങ്ങളാണ് ചോദിച്ച് വരുന്നത് ചെറിയ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുക അത് തന്നെ ആണ് ഇത് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ചോദിച്ച് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ അതൊക്കെ അവർക്ക് കാണിച്ച് കൊടുത്തു അവർക്ക് അതല്ല ഇഷ്ടാന്ന് കുട്ടികളുടെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഭാരം കുറഞ്ഞത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ലേശം കട്ടിക്കുള്ളതല്ലേ ആ കിട്ടും എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഞാൻ അത് കാണിച്ചെരാന്ന് വച്ച് ഇരിക്കയായിരുന്നു ഇപ്പം പുതുതായിട്ട് വന്നത് അറിയാമായിരിക്കുമല്ലോ വെള്ള സ്വർണ്ണം റോസ് സ്വർണ്ണം എന്നൊക്കെ പറയുന്നത് ഇങ്ങക്ക് കുറച്ച് കൂടുതലായിട്ട് വേണം എന്നല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് സംശയമാണ് എന്നാലും ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ അവർ എത്തിച്ചേരുമെന്ന് വിചാരിക്കാം അത് അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ അവരോട് കൂടുതൽ നല്ല വിശദമായിട്ട് സംസാരിച്ചോളാം അവരോട് കുറച്ച് കഴിയുന്നത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എത്തിച്ചേരാൻ പറയുക ബാക്കി അവർ സൗകര്യത്തിന് അനുസരിച്ച് അധികം വൈകാതെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന വിധത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് നോക്കാം അയ്യോ വേണ്ട ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു മുപ്പത് നാൽ പത് വർഷമായിട്ട് അവരെ തന്നെ അല്ലേ ഏൽപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് അത് ഞങ്ങൾ മാറ്റി കൊടുത്തു എന്ന് വച്ചാൽ അവർ അവർക്ക് അതൊരു അടി പെട്ടത് പോലെ ആവൂലേ അതുകൊണ്ട് അങ്ങനെ വേണ്ട അവരെ കൊണ്ട് തന്നെ ഞമ്മക്ക് ചെയ്യിക്കാം അവർ അതിൻ്റെ നമ്മളെ രീതിക്ക് അനുസരിച്ച് അവർ ചെയ്തേരുന്നെന്നആന്ന് എൻ്റെ വിശ്വാസം ആ ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ട് നാളെ തന്നെ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാം ആ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയ ഉടനെ തന്നെ വിളിക്കാം